ഹലോ ആ പറഞ്ഞോ ടോപ്പിലാണോ ആ ഓക്കേ അപ്പം നേരത്തെ ആ മരുന്ന് ഇപ്പോൾ ഇപ്പോൾ എങ്ങനെ ഉണ്ട് ഇപ്പോൾ ഷുഗർ ഉണ്ടോ ഇല്ല ഇപ്പോൾ എന്തെങ്കിലും തളർച്ചയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഉണ്ടോ ഇപ്പോൾ തളർച്ച ഉണ്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ തളർച്ച ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ എന്താ പറയണ്ടെ ഷുഗറ് നോക്കാറുണ്ടോ അപ്പം ഇത് ഷുഗറ് കൊണ്ടാണ് പ്രശ്നം വരുന്നത് എന്ന് ഉറപ്പാക്കാനായിട്ട്

ഓക്കേ ഓക്കേ ഓക്കേ അപ്പോൾ അത് നോക്കുമ്പോൾ ഷുഗറ് കൊണ്ടാണ് ഇത് വരുന്നതെന്നാണ് മനസ്സിലാവുന്നത് അല്ലേ ഓക്കേ ഓക്കേ ഓക്കേ അപ്പം അങ്ങനെ ആണെങ്കിൾ ഇപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിസിൻ കൂടാതെ എടയ്ക്ക് എടയ്ക്ക് ഇത് വരുന്നുണ്ടല്ലോ ഇപ്പോൾ പുതിയ ഒരു രണ്ട് മരുന്നുകളും കൂടെ എഴുതാം ഒരെണ്ണം ഷുഗറിന് വേണ്ടി അല്ലെങ്കിൽ ഡയബറ്റിക്സ് കുറയാൻ വേണ്ടി ഒരെണ്ണം അതിൻ്റെ കൂടെ ഒരു സപ്ലിമെൻ്റ് ആയിട്ട് ഒരു വൈറ്റമിൻ ഗുളികയും കൂടെ കൂടെ എഴുതാം ഓക്കെ അത് ഇതിൽക്കൂടി ഇപ്പോൾ വാട്ട്സ്ആപ്പ് ചെയ്തു തരാം ഓ വേറെ ഒന്നും ഇല്ലല്ലോ പറയാൻ അത് ഷുഗറിൻ്റെ പാർട്ട് ആയിട്ട് ആണോ തലവേദന വരുന്നത് ആ അതെ ഷുഗറിൻ്റെ പാർട്ട് ആയിട്ട് അങ്ങനെ മെഡിസിൻ കൃത്യം ആയിട്ട് മെഡിസിൻ കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ് പിന്നെ ഫസ്റ്റ് ഇപ്പോൾ ഒരു മരുന്ന് സ്ഥിരം ആയിട്ട് കഴിച്ച് ആ ഞാൻ ആ പ്രത്യേകിച്ച് ഷുഗറിന് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സ്റ്റാർച്ച് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് മധുരം അതുപോലെ ഉള്ള അതും നമ്മുടെ ഫുഡ്ഡ് ആണെങ്കിൽ അത് കുറയ്ക്കുക നമ്മുടെ ഡയബറ്റീസിൻ്റെ ലെവൽ അനുസരിച്ച് നമ്മൾ കുറയ്ക്കുക കൂട്ടുക ചെയ്യാം അതു നമ്മൾ നമ്മുടെ ബോഡി മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം പിന്നെ മെഡിസിൻ എടുക്കുക കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന മെഡിസിൻസ് ഒക്കെ എടുക്കുക ഈ മെഡിസിൻ എടുത്ത് കൃത്യമായിട്ട് അത് നമ്മളെ ശരീരത്തിന് അത് എഫക്റ്റ് ആവുന്നില്ലയെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ മെഡിസിൻ മാറുകയും ചെയ്യണം ഡോക്ടറെ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നെ അത് മാറ്റി എടുക്കണം അത്രയും ചെയ്തെങ്കിലേ ഇത് ഓക്കെ ആവുളളു